നമ്മളുടെ കേരളത്തിൽ ഒരുപാട് പേരു കേട്ട വിനോദ കെ വിനോദ സാംസ്കാരിക പരിപാടികളുണ്ട് അത് ഇന്നത്തെ കേരളത്തിലെ പല മനുഷ്യർക്കും അതറിയില്ല അത് ജനിച്ച കുട്ടി മുതൽ പക്ഷെ ഒരു വലിയ ഒത്തൊരു മനുഷ്യൻ പക്വതയെത്തിയ മനുഷ്യൻ വരെ ഒരുപാട് വിനോദത്തോടെ ആസ്വദിക്കുന്ന ഒരുപാട് ഒരുപാട് സാംസ്കാരിക പരിപാടികൾ നമ്മളുടെ കേരളത്തിൽ നി നിലനിൽക്കുന്നുണ്ട് അല്ല അല്ലയെന്നുണ്ടെങ്കിൽ നടന്നു വരുന്നുണ്ട് പക്ഷെ ഇതൊന്നും പല മനുഷ്യരും അറിയുന്നില്ല അല്ലയെന്നുണ്ടെങ്കിൽ പലരും അതിനെ കുറിച്ച് അറിയാൻ താത്പര്യപ്പെടുന്നില്ല പക്ഷെ അവരല്ലാതെ തന്നെ ഒരുപാട് ഒരുപാട് മനുഷ്യൻ നമ്മുടെ കേരളത്തിൽ ഇതെല്ലം ഇഷ്ടപ്പെടുന്നതും ഒരുപാട് നെഞ്ചോടു ചേർത്തു വെക്കുന്ന മനുഷ്യരും നമ്മളുടെ ഇടയിലുണ്ട് അപ്പോൾ ഒരുദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളം പേരു കേട്ട കേരളമാണ് പല വിനോദ കാര്യങ്ങളൾക്കും ഇപ്പോൾ ഒരുദാഹരണം പറയാം മതം സംസ്കാരികത അതിൻറ്റെ കായിക പരിപാടികൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും നമ്മുടെ കേരളം പേരു കേട്ട ഒരു സ്ഥലമാണ് ഇപ്പോൾ മച്ചാട്ട് മാമാങ്കം അതുപോലെ തന്നെ തിരുന്നക്കര ആറാട്ട് നെഹ്റു ട്രോഫി വള്ളം കളി ഇതെല്ലം പേരു കേട്ട പരിപാടികൾ തന്നെയാണ് ഇങ്ങനെയുള്ള പരിപാടിക്കെല്ലാം ഒരുപാട് ഒരുപാട് പേര് കാത്തിരിക്കും കാത്തിരിക്കും അതി അതിലവർ ഒരു ഉത്സവം പോലെ അവർ കൊണ്ടാടും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ തന്നെയൊരു വലിയൊരു പരിപാടിയാണ് വലിയൊരു തൃശ്ശൂർ പൂരം അതിനെ പല നാടുകളിൽ നിന്നും പല രാജ്യങ്ങളിൽ പല പല കടലും കരയെല്ലാം താണ്ടി അക്കരയിൽ നിന്നും ഇക്കരയിൽ നിന്നും പല മനുഷ്യന്മാരും നമ്മുടെ തൃശ്ശൂർ പൂരം കാണാൻ എത്തുന്നു കേരളത്തിലോട്ട് കാരണം നമ്മുടെ കേരളം കേര് പേരു കേട്ട ഒരു നാടാണ് പ്രത്യേകിച്ചും സാംസകാരിക പരിപാടികളിൽ തന്നെ ഓ നമ്മളുടെ കേരളം ഉത്സവത്തിലൊക്കെ പേരു കേട്ട ഒരു നാടാണ് അതുകൊണ്ടു തന്നെ ഒരുപാടു മനുഷ്യർ നമ്മുടെ കേരളത്തെ നെഞ്ചോട് ചേർത്തു വെച്ചിട്ടുണ്ട്